എൻ്റെ മകൻ സഹോദരൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം എനിക്ക് ആഗ്രഹാ ഒരു പി എച് ഡി ഒക്കെ എടുക്കാൻ ഇപ്പോൾ അവർക്ക് പഠിക്കണമെങ്കിൽ അവർ പേടിച്ചോട്ടെ നമ്മൾ ആരെയും നിർബന്ധിപ്പിക്കാനൊന്നും പറ്റില്ല അവനവന് തോന്നണം അവനവൻ പഠിക്കണമെന്ന് അവനവൻ്റെ തലയിലത് കയറി അവനവൻ പരീക്ഷ എഴുതിയലല്ലേ ജയിക്കുള്ളൂ അപ്പോൾ അവനവന് തോന്നണം അവനവൻ പടിക്കണംന്ന് ഇപ്പോൾ ഞാനിപ്പോൾ എത്ര ആഗ്രഹിച്ചിട്ടെന്നാ ഞാൻ മറ്റുള്ളവരെ ആഗ്രഹിക്കൂല ഞാൻ എൻറ്റെ മാത്രമേ ആഗ്രഹിക്കൂ